ആദ്യകാലത്തക്കെ നമ്മൾ കത്തും പേപ്പറൊക്കെ വായിക്കുമ്പോൾ കറക്റ്റായിട്ട് കത്തെഴുതമ്പളക്കെ മലയാളം തന്നെ എഴുതീരുന്നത് ഇപ്പോൾ കത്തെഴുതി അത് പോലെ വായനെ ഒക്കെ കുറഞ്ഞ കാലത്ത് ഫോണുപയോഗിക്കണത് ഒക്കെ കാലമായപ്പോൾ മലയാളങ്ങനൊന്നും ആരും ഉപയോഗിക്കണില്ല മലയാളത്തിന് പകരം മങ്ക്ളീഷായിട്ടോ അല്ലെങ്കിൽ ഇങ്ക്ളീഷിലൊക്കെ കൂടുതൽ മെസ്സേജയക്കലും കാര്യങ്ങൾ പറയലൊക്കായി ഫോൺ ചെയ്യണ സമയത്തായാലും ഒക്കെ ആ ഒരു രീതിയ്ക്കായ് അതേ സമയം പണ്ട് കത്തക്കെ എഴുതുമ്പം പൂർണ്ണമായിട്ട് മലയാളത്തിലന്നെണ് എഴുതിയിരുന്നത് നല്ല രീതിലുള്ള മലയാളം എഴുതിയിരുന്നു ഇപ്പം മലയാളത്തിന് അത്തരം ഒരിതില്ലാതെ ഫോണിൽ മെസ്സേജയ്ക്ക അങ്ങനക്കെ ചെയ്യുമ്പം നമ്മൾ മങ്ക്ളീഷായ്ട്ടും അല്ലെങ്കിൽ നല്ല ഇങ്ക്ളീഷിലക്കെയാണ് എഴുതുള്ളു ആദ്യം നല്ല രീതിയിൽ മലയാളം ഉപയോഗിച്ച്ന്നള്ളതിനോടൊപ്പം മലയാളം അങ്ങനെ ഉപയോഗിച്ച് വാക്കുകളൊന്നും എഴുതാനോ പറയാനോ ഒന്നും ആഗ്രഹിക്കണില്ല എല്ലാവരും മങ്ക്ളീഷിലോ അല്ലെങ്കിൽ കൂടുതൽ ഇങ്ക്ളീഷോക്കെ പറയാനാണ് താൽപ്പര്യപ്പെടണത്